അതെയതെ അതെ പറയൂ

എത്ര രൂപയാണാവശ്യം ആ ആ പത്തു പവൻ അല്ലേ ആ പത്ത് പത്ത് പവന് ഇപ്പോൾ ആതാണെങ്കിൽ കിട്ടില്ല ഇപ്പം തന്നെ ക്രിസ്മസ് ഓഫറുണ്ട് കേട്ടോ ഇപ്പോൾ ഗോൾഡ് ലോണാണെങ്കിൽ പലിശയും കുറവാണ് പിന്നെ പത്തു പവൻ വെച്ചാൽ ഒരു നാലേമുക്കാൽ ലക്ഷം വരെ കിട്ടും അടുപ്പിച്ച് അഞ്ചു തികച്ച് പാടാണ് മാഡം നാലാണ് കൊടുത്തുകൊണ്ട് ഇരുന്നത് ഈ ഓഫറുള്ളത് കൊണ്ടാണ് നാലേമുക്കാൽ ലക്ഷം ആയത് മ് ആ നിങ്ങളെന്തായാലും നേരിട്ടൊന്ന് വരൂ എന്നിട്ട് സംസാരിക്കാം ആ

ആ മ് ആ ആ ഓ ഓ ഓ നിങ്ങൾ നേരിട്ടൊരു ദിവസം വരൂ ബാങ്കിലേക്ക് മ് മ് ആ ആ ആ ഇല്ല ഇല്ല ഗോൾഡ് ലോണാണെങ്കിൽ പെട്ടെന്നു ഒരാഴ്ചക്കുള്ളിൽ പൈസ അക്കൗണ്ടിൽ വരും താമസമില്ല ആ

പലിശ ഇപ്പം ക്രിസ്മസ് ഓഫറായത് കൊണ്ട് എട്ട് ശതമാനമാണ് കുറവാണ് പലിശ ആദ്യം പതിമൂന്ന് ശതമാനം ആയിരുന്നു പലിശ എട്ട് ശതമാനം ആക്കിയിട്ടുണ്ട് ആ ആ പറ്റില്ല ഓ ഓ പലിശ നിങ്ങളിപ്പോൾ മാസം തോറും അടക്കണമെന്നില്ല ഒരു വർഷത്തേക്ക് ഇത്ര രൂപ പലിശ അടച്ചിട്ട് മുതല് കിട്ടുമ്പോൾ ഒത്തുകൊണ്ട് അടച്ചാൽ മതി അപ്പം പലിശ അങ്ങു അടഞ്ഞു പോകും വർഷാവർഷമുള്ള

ആ പലിശ ഇത്ര തുക പിന്നെ വരുമ്പോൾ വർഷം മുടങ്ങാതെ പലിശ അങ്ങു അടച്ചു പോയാൽ മതി ഒറ്റ എമൗണ്ട് അടക്കാൻ ഇല്ലെങ്കിൽ

ഇല്ല ഇല്ല പലിശ മാത്രമേ അടയുകയുളളൂ അല്ലാതെ മുതലും പലിശയും കൂടെ അടക്കാനുണ്ടെങ്കിൽ നമ്മൾ മാസാമാസം അടക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വർഷം എത്ര രൂപ പലിശ അങ്ങനെ അങ്ങു അടക്കണം എന്നിട്ട് എമൗണ്ട് കിട്ടുമ്പോൾ ഇപ്പം രണ്ടു ലക്ഷം കിട്ടുവാണെങ്കിൽ അതുകൊണ്ടങ്ങ് അടക്കുമ്പോൾ അത്രയും പലിശ കുറഞ്ഞിരിക്കും ഓ മ് മ് മ് മ് ആ ആ അതെ ആ നിങ്ങള് നേരിട്ട് വരാം നമുക്ക് സംസാരിച്ച് എന്താണ് ചെയ്യാം മ് അതെ ആ ആ ശരി ശരി